അതേ ഇതാരാണ് സംസാരിക്കുന്നത്

അതെയോ ആ ആ അതെയോ

ആ എന്താവശ്യത്തിനാണിപ്പോൾ ഓ അതെയോ ആ ആ ഇണ്ട് ഇൻട്രെസറ്റിപ്പോൾ പതിനൊന്ന് പതിനൊന്ന് പെർസെൻറ്റാണ് ഇൻട്രെസ്റ്റ് ഇല്ലല്ലോ ഇപ്പോൾ പതിനൊന്ന് ഇപ്പോൾ ഈ ഇപ്പം അടുത്ത് പതിനൊന്ന് വന്നതാണ് അതിപ്പോൾ മാറാൻ ചാൻസില്ല പതിനൊന്ന് തന്നെ ഉണ്ടാവുമല്ലോ

ആ ഇങ്ങോട്ട് ഒന്ന് വരുമ്പോൾ ഒരു ആധാർ കാർഡും പാൻ കാർഡും പിന്നെ സാലറി സർട്ടിഫിക്കറ്റും ഒന്ന് സംഘടിപ്പിച്ചിട്ട് വരണം പിന്നീട് സംസാരിക്കാം എങ്ങനെയാണ് പെട്ടന്ന് പെട്ടെന്നുണ്ടോ ആ അടവോ

ആ ആ കഴിയുന്നത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യാം ഒരു മാസത്തിൽ ചെയ്ത് തരാം

ആ ആ

ഒന്നര കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഒരു ഒന്ന് അഡ്ജസ്റ്റ് ആക്കാം ഒരു ഒരു ലക്ഷം വരെ ആ ആ തിങ്കളാഴ്ച വരുമ്പോൾ കുറച്ച് വേഗം വിളിച്ചിട്ട് വരണം കേട്ടോ ഓക്കെ ഒരു ആ പതിനൊന്ന് മണിക്ക് ശേഷം വന്നാൽ മതിയാവും ആ